ആരോഗ്യമേഖല എന്നല്ല എല്ലാ മേഖലയിലും അഴിമതി നടക്കുന്നുണ്ട് ഹോസ്പിറ്റല് പണിയുക പുതിയ പുതിയ നല്ല നല്ല ഫെസിലിറ്റി കൊണ്ടു വരിക എന്ന് പറഞ്ഞിട്ട് ഗവണ്മെന്റിന്റെ അടുത്തു നിന്ന് കോണ്ട്രാക്റ്റേഴ്സ്മാര് നല്ല പൈസ ഇതാക്കുന്നുണ്ട് ഗവണ്മെന്റും കണ്ടറിഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ആ ഫെസിലിറ്റീസൊന്നും സാധാരണക്കാരനായ ഒരാളുടെ അടുത്ത് എത്തുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം എത്ര ഫെസിലിറ്റീസ് കൊടുത്താലും പിന്നെ നമ്മള് പോയി കഴിഞ്ഞിട്ടുണ്ടേൽ അത്ര ചില ഹോസ്പിറ്റല് ഉണ്ട് സ്റ്റാഫ് ഒക്കെ ക്ലീന് ചെയ്തു ക്ലീന് ചെയ്ത് പോവും കാരണം ഹോസ്പിറ്റല് എപ്പോഴും ക്ലീന് ആയിരിക്കണം അതിനു ക്ലീനിംഗ് സ്റ്റാഫിനെ വയ്ക്കണം അതൊക്കെ നിര്ബന്ധമാണ് ചിലപ്പം നമുക്ക് ബാത്ത്റൂമിൽ പോലും കേറാന് പറ്റാത്ത അത്രയും വൃത്തികേട് കാണാന് പറ്റും അപ്പൊ വേസ്റ്റ് അലക്ഷ്യമായിട്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് പല അസുഖവും വരും അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞു ചെയ്യാന് സ്റ്റാഫിനെ വയ്ക്കുക പിന്നെ വേണ്ടത്ര ഫെസിലിറ്റി നമ്മള് പിന്നെ ഇപ്പൊ നമുക്ക് കുഴപ്പം ഇല്ല നമുക്ക് മെഡിക്കല് കോളേജ് ഉണ്ട് അടുത്ത് പക്ഷെ വേറെ വല്ല ജില്ലക്കാരൊക്കെ ആണെങ്കില് ഒന്നോര്ത്തു നോക്ക് നമ്മുടെ ജില്ലയിലേക്ക് അതായത് കോഴിക്കോട് മെഡിക്കല് കോളേജിൽ കൊണ്ടു വരുന്ന എത്ര ജില്ലക്കാരുണ്ട് ഈ പിന്നെ എമര്ജന്സി കേസ് വരുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള പിന്നെ അങ്ങനെയുള്ള ഒത്തിരി സ്ഥലങ്ങള് ഉണ്ട് ഒത്തിരി ജില്ലകള് ഉണ്ട് അപ്പോ നല്ല ആംബുലന്സ് സര്വീസ് വയ്ക്കുക അതേപോലെ തന്നെ പിന്നെ അവര്ക്ക് അത്യാവശ്യം വേണ്ടി എമര്ജെന്സി ചെയ്യാന് വേണ്ടി പറ്റുന്ന എല്ലാ ഡോക്ടേഴ്സിനെ നല്ല രീതിയില് നിയമിക്കുക അതേപോലെ തന്നെ അങ്ങനത്തെ എന്ത് ഇപ്പൊ അറ്റാക്ക് വന്നിട്ടോ ആക്സിഡന്റ് വന്നിട്ട് വരുന്നവര്ക്ക് അതിനു പറ്റിയ ഫെസിലിറ്റീസുകള് ഹോസ്പിറ്റലുകളില് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഇതുണ്ടാവില്ല നമ്മൾ പൈസ എന്തൊക്കെ നമ്മുടെ ഗവണ്മെന്റ് പൈസ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് എന്താ എവിടെ പോകുന്നുവെന്ന് മാത്രം അറിയുന്നില്ല